പരമ്പരാഗത രീതിയിലുള്ള നീന്തൽ രീതികൾ പരീക്ഷിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ച് കഴിഞ്ഞഴിഞ്ഞാൽ ഉണ്ട് കാരണം നമ്മള് സ്വയമേ ആരും നമ്മളെ പഠിപ്പിച്ചിട്ടല്ല നീന്തലും കാര്യങ്ങളും പഠിച്ചുപോകുന്നത് കാരണം നമ്മുടെ ഒരു ഭൂപ്രകൃതിയുടെ ഒരു രീതി അനുസരിച്ച് കുട്ടനാടൻ പ്രദേശത്തിൻ്റെ ഒരു രീതിയനുസരിച്ച് നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് കുട്ടനാടെന്ന് പറയുന്നത് അപ്പോള് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മള് ഇത് നീന്തലിന് ഒരു പ്രത്യേക ഒരു ക്ലാസ്സോ പരിശീലനമോ ഒന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല കാരണം കുഞ്ഞുന്നാളുതൊട്ടേ കണ്ടും കേട്ടും അങ്ങനെ വളർന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള നീന്തൽ രീതികള് ആണ് ഇതീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീന്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിനും മനസ്സിനും തീർച്ചയായിട്ടും നല്ല ഒരു എക്സർസൈസാണ് പ്രത്യേകിച്ച് ശാരീരികപരമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല ഒരു എനർജി തരുന്ന ഒരു കാര്യമാണ് നീന്തൽ എന്നു പറഞ്ഞാല് എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി ഒന്ന് നീന്തി ഒരഞ്ചു മിനിറ്റ് നീന്തി കുളിച്ചുകയറി വന്നുകഴിഞ്ഞാൽ അത് നല്ല ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ശാരീരിക ബലത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഒരു കാരണമാവും പിന്നെ യോഗ ഒക്കെ ഇതിന് എന്തെങ്കിലും സപ്പോർട്ടീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ തീർച്ചയായിട്ടും നല്ല ശരീരികമായിട്ടുള്ള ഉന്മേഷത്തിനും ശരീരികപരമായിട്ടുള്ള ഘടനയ്ക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും തീർച്ചയായിട്ടും നല്ല ഒരു ഇത് അഭ്യാസം തന്നാണ് യോഗ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ

എക്സർസൈസൊക്കെ ഉപയോഗിക്കുന്നു എന്നു പറഞ്ഞാൽ അത് നീന്തലുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലത് നല്ല ഒരു കായികവും ഘടകങ്ങളിലോട്ടും തന്നാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ശരീരത്തിന് നല്ലൊരു ആനന്ദവും ഉന്മേഷവും തരുന്ന കാര്യമാണ് നീന്തൽ നീന്തലിന് ഞാൻ എല്ലാ ദിവസവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യായാമമുറയും കൂടാണ് നീന്തലെന്ന് പറഞ്ഞാല് മുന്പ് പറഞ്ഞതിന്റെകൂട്ട് കുട്ടനാടൻ പ്രദേശം നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശമെന്നുള്ള രീതിയില് നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിനെ അവോയ്ഡ്യ്തോണ്ട് ഒരു ജീവിത ശൈലി നമുക്ക് ഇവിടെ സാധ്യമല്ല അതുകൊണ്ട് എപ്പോഴും ഏത് രീതിയില് പോയാലും നമ്മള് നീന്തലും പഠിച്ചിരിക്കണം അത് ഒരു അത്യാവശ്യ ഘടകമാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യായാമ മുറ തന്നാണ് നീന്തല് തീർച്ചയായിട്ടും ശരീരത്തിന് ഉന്മേഷവും ഉത്തേജനവും തരുന്നതും നല്ല ഒരു കായികാഭ്യാസത്തിന് പ്രയോജനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് നീന്തല് അത് നൂറ് ശതമാനവും നമ്മള് പ്രൊമോട്ടയ്യണ്ട കാര്യമാണ് എൻ്റെ കുഞ്ഞുങ്ങളോടായാലും പറയാറുണ്ട് എല്ലാ ദിവസവും വെള്ളത്തിലിറങ്ങി നീന്തി കുളിച്ചുകയറിയൊന്ന് വന്നുകഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക ഒരു ശരീരിക ഇത് ഉന്മേഷം തന്നാണ് എല്ലാ രീതിയിലും തീർച്ചയായിട്ടും അതിനെ നമ്മള് പ്രൊമോട്ടയ്യുവാണ് ഒരു തരത്തിലും നീന്തലിനെ കുറച്ചുകാണാനായിട്ട് ഞാൻ തയ്യാറല്ല നൂറു ശതമാനവും മനുഷ്യൻ്റെ ശരീരത്തിന് നല്ലതായ ഒരു കായിക അഭ്യാസമാണ് ഇന്നത്തെ യുവ തലമുറ ഇന്നത്തെ പുതിയ ജനറേഷൻ ഇതില് കൂടുതലും ഭാഗഭാക്കാകുന്നില്ല എന്നുള്ളതും വളരെ സങ്കടകരമായ കാര്യമാണ് അതീ ബാത്റൂമിലുള്ള കുളിയും ബാത്റൂമിലെ ഷവര് ഈ നദികളിൽനിന്ന് വെള്ളമടിച്ച് മോട്ടോറടിച്ച് ടാങ്കില് കയറ്റി അവിടെനിന്ന് ഷവര് വഴി വെള്ളമെടുത്ത് ഉപയോഗിച്ച് കുളിച്ചിറങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരില് കണ്ടുവരുന്നത് അത് ഒരു ശ്ളാഘനീയമായ കാര്യമല്ല അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടണം ഈ പറഞ്ഞതിന്റെകൂട്ട് രണ്ട് നേരവും എങ്കില് ഏറ്റവും നല്ലത് അല്ലെങ്കില് ഒരു നേരമെങ്കിലും നമ്മുട ജലാംശം ജലാശയങ്ങളിലിറങ്ങി നീന്തി കുളിച്ച് കയറി ന്ന് വന്നുകഴിഞ്ഞാല് അതിൻ്റെ ഒരു ശരീര ക്ഷമത അല്ലെങ്കിലൊരു ശരീരത്തിൻ്റെ ഗുണം അത് വേറെ ഒന്നു തന്നെയാണ് എന്ന് ഞാൻ പറയാനാഗ്രഹിക്കുന്നു